ജലസേചനം ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്നു പറയുമ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ വേനലായിക്കഴിഞ്ഞാൽ അതായത് ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ വെള്ളത്തിന് ഒത്തിരി ബുദ്ധിമുട്ടനുഭവപ്പെടുന്ന ഒരു മേഖലയാണിത് വെള്ളം ലഭ്യമല്ലാത്ത ജലസേചന സൗകര്യമില്ലാത്ത ഒത്തിരി പ്രദേശങ്ങളുണ്ട് ഒത്തിരി കുടുംബങ്ങളുണ്ട് വീട്ടിലെ ആവശ്യങ്ങൾക്കു പോലും വെള്ളം തികയാതെ വരിക അതിനായി മറ്റുള്ള വീടുകളിലേക്ക് ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഈ പ്രദേശത്തുണ്ട് അപ്പം അങ്ങനെയുള്ളവസ്ഥയിൽ നമുക്ക് കൃഷിക്ക് കൃഷിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ കൃഷികൾക്കുപയോഗിക്കാനുള്ള വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് കൂടുതൽ പേരും ജലസേചനത്തിനായിട്ട് ജലസേചനത്തിന് ആഴ അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിലാണ് അതായത് കൃഷി നടത്തുന്നുണ്ടെങ്കിലും വെള്ളം ലഭ്യമല്ലാത്ത വെള്ളം ലഭ്യമാകുന്നില്ല വെള്ളം ഒഴിക്കാതെയും ജലസേചനം നടത്താതെയുമാണ് കൃഷികൾ നടത്തുന്നത് എങ്കിലും കുറേ സ്ഥലങ്ങളിൽ ജലസേചനം നടത്തി കൃഷി ചെയ്യുന്നുണ്ട് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയെന്നു പറയുമ്പോൾ തണുപ്പ് നിറഞ്ഞ പ്രദേശമാണ് ഇവിടെ അതു കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഏല കൃഷിയാണ് ചെയ്തിരിക്കുന്നത് ഏലത്തിന് എപ്പോഴും ജലസേചനമാവശ്യമുള്ളതാണ് ജലസേ വേനലായി കഴിഞ്ഞാൽ അതായതൊരു ഫെബ്രുവരി ഈ മാർച്ചൊക്കെ മാസമായി കഴിയുമ്പോഴേക്കും അതിനു വെള്ളമൊഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഓരോ രീതിയിലും അതിൻ്റെ തട്ടകൾ മറിയുകയും കൃഷി നശിച്ചു പോകാനും ഇടയാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കഠിനമായ ചൂടിൽ ഈ പ്രദേശത്ത് മുഴുവനായും വെള്ളം വറ്റുകയും ജലസേചനത്തിന് ആർക്കും സൗകര്യമില്ലാതാകുകയും അതു കൊണ്ടു തന്നെ കൃഷി ഒത്തിരി നശിച്ചു പോകാനും ഇടയായിട്ടുണ്ട്

രണ്ട് മാസത്തെ വെയിലോട് കൂടി എല്ലാം നശിച്ചിട്ട് എല്ലാവരും എല്ലാ കർഷകരും നിരാശയിലാണ്ട ഒരു അവസ്ഥാ വിശേഷമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂൺ മാർച്ച് ഏപ്രിൽ അങ്ങനെയുള്ള മാസങ്ങളിലൊന്നും ജലം കിട്ടാത്തതു കൊണ്ട് ആ മാസങ്ങളിലൊക്കെ അനുഭവിപ്പിച്ച് അനുഭവിച്ചു കൊണ്ടിരുന്നത് ജലസേചനം മഴ അൽപം കുറഞ്ഞ് കുറയുമ്പോഴേക്കും ജലസേചനം ആവശ്യമുള്ള കൃഷിയാണ് ഏല കൃഷി ഏലത്തിന് പൂവിടണമെങ്കിൽ എപ്പോഴും വെള്ളം കൂടിയേ തീരു വെള്ളമുള്ള സ്ഥലങ്ങൾ വെള്ളം മഴ പെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ധാരാളം അതിന് കായ് ഫലങ്ങളുണ്ടാകുകയുള്ളു ചൂട് കൂടിയതും മഴക്കുറവുമായ കാലാവസ്ഥയുള്ള വർഷങ്ങളിൽ ഒത്തിരി കൃഷി നശിച്ച് പോകാനിടയാകുകയും അതു പോലെ തന്നെ കായ്കൾ കിട്ടാതെ ആകുകയും ചെയ്യുന്നു കർഷകർ ഒത്തിരി പ്രതീക്ഷയോടു കൂടി കൃഷിയിട കൃഷികളിൽ കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കുകയും പക്ഷേ അനുയോജ്യമല്ലാത്ത കാലാവസ്ഥ അതായത് മഴക്കുറവ് മൂലം അവർക്ക് അതിനുള്ള ഫലങ്ങൾ ലഭിക്കാതെ വരുന്നു തൽഫലമായിട്ട് കർഷകർ വളരെയേറെ പ്രതിസന്ധി അനുഭവപ്പെടുന്നുണ്ട് കാർഷിക മേഖലയിലെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖല ഏറ്റവും അധികമായിട്ടാശ്രയിക്കുന്നത് കൃഷിയെയാണ് അപ്പം ഈ ജലസേചനമില്ലാതെ വരുന്നത് കൊണ്ട് കാർഷിക മേഖല ഒത്തിരി പിന്നോക്കാവസ്ഥയിലോട്ട് പോകുന്നു കർഷികമേഖല പിന്നോക്കാവസ്ഥയിലായ ആകുന്നതു മൂലം കർഷകരും അതു പോലെ തന്നെ കടക്കെണിയിലേക്ക് മാറുകയാണ് ധാരാളം വളങ്ങളും പൈസ ധാരാളം കാശു മുടക്കി ധാരാളം മുതൽ മുടക്കി ഓരോ കൃഷിക്കാരനും കൃഷിയിറക്കുന്നത് അതിന് തൊഴിലാളികളെ ആവശ്യമുണ്ട് അതു പോലെ തന്നെ വളങ്ങളായാലും ധാരാളം ആവശ്യമുണ്ട് ഒത്തിരിയും മുതൽ മുടക്കി കൃഷിയിലേക്കിറങ്ങുന്ന കർഷകർക്ക് ജലസേചന സൗകര്യമില്ലാത്തതിനാൽ ഒത്തിരി കൃഷി നശിക്കുന്നുണ്ട് കൃഷി കാർഷിക മേഖലയിലേക്ക് ജലസേചനം ഒട്ടും ഇവിടെയുള്ള സാഹചര്യങ്ങളിൽ ഒട്ടും അപര്യാപ്തമല്ല ഒട്ടും അപര്യാപ്ത ഒട്ടും പര്യാപ്തമല്ല ഇവിടെ വീടുകളിലേക്ക് മാത്രമാണ് പൊതുവായ കുളങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നുമൊക്കെയുള്ള പൊതു കുളങ്ങളിൽ നിന്ന് ഗവൺമെൻറിൻ്റേയും മറ്റും ഉള്ള പൊതു കുളങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജലം അത് വീടുകളിലെ ആവശ്യങ്ങൾക്ക് മാത്രമാണുപയോഗിക്കുന്നത് കാർഷികാവശ്യങ്ങൾക്കായിട്ട് ഇവിടെ ജലസേചനത്തിനുള്ള യാതൊരു സൗകര്യങ്ങളും നമ്മുടെയീ ഈ ഗ്രാമത്തിലില്ല അതു കൊണ്ട് തന്നെ സ്വന്തമായിട്ടുള്ള കൃഷിയിട സ്വന്തമായിട്ടുള്ള കൃഷിയിടങ്ങളിൽ സ്വന്തമായിട്ടൊരു കിണറ് കുത്തുകയോ അല്ലെങ്കിൽ കുഴൽക്കിണറുകൾ കുത്തുകയോ ആണ് ഇവിടെയുള്ള ജനങ്ങൾ കാർഷിക മേഖലയിലേക്ക് കൃഷിക്കാവശ്യത്തിനുള്ള ജലം സ്വരൂപിക്കുന്നത് അതാണെങ്കിലും വലിയ വേനലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും പര്യാപ്തമല്ല ആ മേഖലകൾ അതു കൊണ്ട് തന്നെ വലിയ വേനലുണ്ടാകുമ്പോൾ കൃഷിക്കാർ നിരാശയിലാകുകയും അവരുടെ കൃഷികളെല്ലാം നശിച്ച് പോകുകയും വീണ്ടും മഴ പെയ്തു കഴിയുമ്പോൾ വീണ്ടും ആദ്യം മുതൽ തന്നെ കൃഷിയിറക്കേണ്ടൊരവസ്ഥ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്